മൺപാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളുമായ മാണ് പ്രധാനമായും പാചകത്തിനായി ഉപയോഗിക്കുന്നത് രണ്ടു തരത്തില് പാചകം ചെയ്യാറുണ്ട് അതായത് വിറകടുപ്പിലും ഗ്യാസ് അടുപ്പിലും പാചകം ചെയ്യാറുണ്ട് മൺപാത്രങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രധാനകാരണം പണ്ട് കാലങ്ങളിൽ മുതലേ നമ്മള് ഉപയോഗിച്ച് വരുന്നൊരു സാമ്പ്രദായിക രീതിയാണ് മൺപാത്രങ്ങളില് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് അതായത് പ്രത്യേകിച്ച് പുളി രസമുള്ള കറികളൊക്കെയാണെങ്കിൽ അതുപോലെ മീൻകറി മാംസം തുടങ്ങിയവ നമ്മൾ മൺപാത്രങ്ങളിലാണ് പ്രധാനമായിട്ടും പാചകം ചെയ്യാറുള്ളത് അത് വിറകടുപ്പില് വെക്കുകയാണ് ചെയ്യുന്നത് അത് അതിന് ഒരു പ്രധാന കാരണം എന്താന്നു വച്ചിട്ടുണ്ടങ്കിൽ അത് കുറച്ചും കൂടി രുചി വർദ്ധിക്കും ഗ്യാ വർദ്ധിക്കുന്നതു കൊണ്ടാണ് രുചി രുചിപ്രദമാണ് വിറകടുപ്പിൽ വെച്ച് വിറകടുപ്പില് മൺപാത്രങ്ങളില് പാചകം ചെയ്യുന്ന ഭക്ഷണ വസ്തുക്കൾ രുചി കൂടുതലാണ് അതുപോലെ തന്നെ ഈ പുളിരസമുള്ള കറികളൊക്കെ മൺപാത്രങ്ങളിൽ വെക്കുമ്പോൾ മറ്റു അലുമിനിയം ഒക്കെ പോലുള്ള പാത്രങ്ങളിലെ രാസപ്രവർത്തനങ്ങള് നടക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ള ഒരു വിശ്വാസവും ഇതിൻറ്റെ ഭാഗമായിട്ട് ഉണ്ട്